വയനാട് ജില്ലയില് കാര്യമായി സ്വാധീനം ചെലുത്തിയ ഒരു സർക്കാർ സംരംഭങ്ങളിൽ പെട്ടതാണ് ജലനിധി കുടിവെള്ള പദ്ധതി അത് എല്ലാ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഉപകാരപെട്ടിട്ടുണ്ട് വെള്ളത്തിന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ വീട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്പെട്ട ഒരു പദ്ധതി ആണ് ജലനിധിയുടെ കുടിവെള്ള സംരംഭം പിന്നെ അത് ഒരുപാട് എല്ലാ ആൾക്കാർക്കും ഉപകാരത്തിൽ പെട്ടിട്ടുണ്ട് പിന്നെ ജില്ലയില് സർക്കാർ ഓഫീസുകളിലൊക്കെ നമ്മൾക്ക് സേവനങ്ങൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിലുള്ള സേവനങ്ങളാണ് കിട്ടുന്നത് നമ്മള് ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അവര് കറക്ട് ചെയ്ത് തരുന്നുണ്ട്